കേള്ക്കുന്നുണ്ടോ ആ ഇത് ഐശ്വര്യ ഗാർമെൻറ്റ്സിൻ്റെ ഓണർ ലക്ഷ്മിയല്ലേ സംസാരിക്കുന്നത് ആ എൻ്റെ പേര് നന്ദ എന്നാണ് ഞങ്ങൾ ഹെല്ലാ ബോട്ടിക് എന്ന് പറഞ്ഞിട്ടൊരു ബോട്ടിക് നടത്തുന്നുണ്ട് തൃശ്ശൂരാണ് സ്ഥലം തൃശ്ശൂര് റൗണ്ടിലായിട്ട് വരും വടക്കുന്നാഥനൊക്കെ കേട്ടില്ലേ അതിൻ്റെ ഓപ്പോസിറ്റായിറ്റാണ് ഞങ്ങളെ കട വരുന്നത് അപ്പോള് ഞങ്ങള്ക്ക് കുറച്ച് പ്രീ ഓർഡര് കിട്ടിയിട്ടുണ്ട് ഒരു കല്ല്യാണ ഫംഗ്ഷനുണ്ട് അപ്പോള് അതിനുവേണ്ടി കുറച്ച് സാരിയുടെ ആവശ്യങ്ങളുണ്ട് സാരി കളക്ഷൻസ് വേണം അപ്പോള് നിങ്ങളുടെ ഗാർമെൻറ്റ്സിനെ പറ്റി കുറേ കേട്ടിട്ടുണ്ട് അപ്പോള് നിങ്ങളുടെ അടുത്തുനിന്നു സെലക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോള് എങ്ങനെയാണ് നിങ്ങളുടെ സാരി കളക്ഷൻസെന്തൊക്കെയാണ് വരുന്നത് ആ ഞങ്ങള്ക്ക് ആവശ്യുള്ളത് കാഞ്ചീപുരം സാരികള് വേണം പിന്നെ സോഫ്റ്റ് സിൽക്ക് സാരികളുണ്ടാവില്ലേ ആ അതുപോലെ വെഡ്ഡിംഗ് ഗിഫ്റ്റായിട്ട് സാരി കൊടുക്കാനുള്ളത് അത് വേണം പിന്നെ ഇങ്ങനൊക്കെയാണ് വേണ്ടത് അപ്പോള് ഇത്രയും സാരികളുടെ ഓർഡര് കിട്ടാൻ പറ്റുമല്ലോ അല്ലേ ആ അപ്പോള് ഇതിൻ്റെയൊക്കെ റേയ്റ്റേകദേശം എങ്ങനെയായിട്ട് വരും എങ്ങനെയാണു വില വരുന്നത് ആ അപ്പോള് അതിൻ്റെ പാക്കിംഗൊക്കെ എങ്ങനെയാ പാക്ക് ചെയ്തിട്ടല്ലേ വരുന്നത് ഓക്കേ അതുപോലെ കാഞ്ചീപുരം സാരീസും വേണം കാഞ്ചീപുരം സാരീസൊക്കെ ഉണ്ടാവില്ലെ അല്ലേ ആ അപ്പോള് നല്ല ക്വാളിറ്റിയൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ ആ ഞങ്ങള്ക്കേകദേശം ഒര് ഏപ്രിൽ അവസാനത്തേക്കാണ് സാരി വേണ്ടത് അപ്പോള് ഒന്ന് കാഞ്ചീപുരം സാരി പിന്നെ കോട്ടൺ സാരീസ് പിന്നെ സോഫ്റ്റ് സിൽക്ക് സാരീസ് പിന്നെ വെഡ്ഡിംഗ് ഗിഫ്റ്റ് സാരീസൊക്കെയാണ് വേണ്ടത് അപ്പോള് ഇതിനൊക്കെ ഞാനുദ്ദേശിക്കുന്നേച്ചഴിഞ്ഞാ വെഡ്ഡിംഗ് സാരികൾക്കൊക്കെ ഒരു ഇരുപതിനായിരത്തിൻറ്റുള്ളില് കിട്ടുവല്ലോ അല്ലേ ഇരുപതിനായിരത്തിൻ്റെ അടുത്ത് ആ അപ്പോള് ഒരു ഞങ്ങള്ക്കൊരയ്യായിരം ആറായിരത്തിനൊക്കെ കൂട്ടി വിൽക്കാൻ പറ്റ്വല്ലോ അല്ലേ ഞങ്ങള്ക്ക് ആ അപ്പോള് ഞങ്ങളൊരു ഇരുപതിന് തന്നുകഴിഞ്ഞാല് ഇരുപത്തഞ്ചിനോ ഇരുപത്തെട്ടിനോ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ അപ്പോള് ഞങ്ങള്ക്കൊരു വെഡ്ഡിംഗ് സാരീസ് ഒരു ഇരുപതെണ്ണം വേണം പിന്നെ അതുപോലെ സോഫ്റ്റ് സിൽക്ക് സാരികളൊക്കെ എവിടുന്നാണ് നിങ്ങള് കൊണ്ടുവരുന്നത് ഓക്കേ അപ്പോള് സോഫ്റ്റ് സിൽക്ക് സാരീസ് ഒരു പത്തെണ്ണം മതി പിന്നെ വെഡ്ഡിംഗ് സാരീസ് അത് പാക്ക്ഡായിരിക്കുമെന്നു പറഞ്ഞല്ലോ അതൊരു ഒരു എട്ടൊന്പതെണ്ണം അത് മതി ഇത്രയെണ്ണമാണ് വേണ്ടത് പിന്നെ കാഞ്ചീപുരം സാരീസൊരു അയ്മ്പതെണ്ണം നിന്നോട്ടെ

ആ കാഞ്ചീപുരത്തിനൊക്കെ ഇപ്പോള് നല്ല റേയ്റ്റുണ്ടോ

ആ ഞങ്ങള് പറഞ്ഞല്ലോ ഇപ്പോള് വെഡ്ഡിംഗ് സാരീസിനൊക്കെ ഒരു ഇരുപതിനായിരം മതി അതുപോലെ കാഞ്ചീപുരമൊരു പതിനഞ്ച് അങ്ങനെയൊക്കെയുള്ള റേറ്റുള്ളത് മതി ആ ഞാനൊന്നെഴുതി എഴുതി ഫോട്ടോ എടുത്തയച്ചുതരാം ആ അപ്പോള് ഞങ്ങളുടെ ഷോപ്പിവിടെ അടുത്തുതന്നാണ് നിങ്ങള്ക്കെപ്പോഴും വല്ലപ്പോഴും വിസിറ്റ് ചെയ്യാന് പറ്റുമെങ്കിൽ നിങ്ങള്ക്ക് വരാം ആ ഒരു അടുത്താഴ്ചയാവുമ്പോഴത്തേക്ക് ഞാൻ ഓർഡര് തന്നുകഴിഞ്ഞാല് ഞാൻ വണ്ടി എടുത്തിട്ട് വന്നുകഴിഞ്ഞാല് കളക്റ്റ് ചെയ്യാൻ പറ്റില്ലേ സാരികള് നിങ്ങളുടെ കട എവിടെയാണ് വരുന്നത് ആ എന്നാല് ഡീറ്റെയിൽസ് ബാക്കി അയച്ച് തന്നോളൂ ഞാനപ്പോള് എന്നാല് വിളിക്കാം ബാക്കി എണ്ണം അയച്ചുതരാം ഓക്കേ താങ്ക് യു ശരി